എനിക്ക് പാചകത്തിൽ ഒ ഏറ്റവും ഇഷ്ടം കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് കപ്പ ബിരിയാണിയിൽ ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കിയാൽ അത് എല്ലാവരും അത് നല്ലതാന്ന് പറയും അവർക്ക് കൂ ഒത്തിരി ഇഷ്ടമാണ് പറയും ആദ്യം കപ്പ കൊത്തി നുറുക്കി എത്തുമ്പോൾ തിളപ്പിച്ച് ഊറ്റിക്കഴിയണം വെന്ത് കഴിയുമ്പോൾ അത് ഊറ്റി വെക്കുക അത് കഴുകി കുക്കറിനകത്ത് കപ്പ കെ കപ്പക്കുള്ള ഇറച്ചി എല്ല് എല്ലും എല്ലാം കൂടെ എല്ല് കപ്പേടെ കപ്പയിറച്ചി കപ്പയിറച്ചി എന്നും പറഞ്ഞ് നമുക്ക് കടയിന്ന് വേ കിട്ടും അത് മേടിച്ച് കുക്കറിനകത്ത് ഒരു നാലഞ്ച് സീറ്റിയടിച്ച് കഴിയുമ്പോഴത്തെക്ക് അരപ്പ് എല്ലാം ചേർത്തിട്ടാണ് കേട്ടോ ആ മീറ്റ് മസാല സവാള വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില എല്ലാം ചേർത്ത് ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കപ്പ തേങ്ങ വറുത്തരക്കണം തേങ്ങയ്ക്കകത് നല്ലപോലെ കറിവേപ്പിലയും ഇഞ്ചിയും ഉള്ളിയെല്ലാം കൂടെ ചേർത്ത് വേണം നല്ല പാകത്തിന് മൂപ്പിച്ച് എടുത്തേച്ച് അത് മിക്സിക്കകത്തിട്ട് നല്ലപോലെ അടിക്കും അടിച്ച് അടിച്ച് ഇത് കപ്പയുടെ കൂടെ ഇട്ട് ഇളക്കി നല്ല അപ്പോൾ എല്ലാവരും പറയും നല്ല ടേസ്റ്റാന്ന് പറയും കപ്പയിറച്ചി വെച്ചേക്കുന്നത്